ഞാനേ വയനാട്ടിലെ ട്രക്കിംഗ് സ്പോട്ട് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു

അപ്പോൾ നമുക്ക് വ ഒരു ദിവസം കൊണ്ട് കവറ് ചെയ്യാൻ പറ്റുവോ അതോ രണ്ട് ദിവസം വേണ്ടി വരോ എല്ലായിടത്തും പോയി ഇറങ്ങി ഓക്കെ ഓക്കെ അപ്പം അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് പോന്നെയായിരിക്കും ബെറ്റർലെ ഇപ്പോൾ നിങ്ങൾ തന്നെ അക്കോമഡേഷനും കാര്യങ്ങളും റെഡിയാക്കോ ഓക്കെ ഓക്കെ അപ്പോൾ പ്ലാനിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് ഫസ്റ്റ് എവിടെയാണ് പോകുന്നതെന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവുല്ലോ ഓക്കെ ഓക്കെ അവിടുന്ന് തന്നെയായിരിക്കും ലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഓക്കെ മേപ്പാടി ആ മേപ്പാടി എത്തണം ലെ

ഓക്കെ അത് ആഅതെത്ര മണിക്കൂറ് വേണ്ടിവരും അവിടെ ആ വണ്ടീം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലാലെ മേലോട്ട് ഓക്കെ ഒക്കെ ആ അ അറിയാം അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ഗൂഗിൾളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു നോക്കിയായിരുന്നു

ആ എടക്കല് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടായാലും കയറുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുല്ലാന്ന് തോന്നുന്നല്ലേ അ ആ അത് മോണിംഗ് കയറണ്ട വരും ലെ വ്യൂ കിട്ടണമെങ്കിൽ മോണിംഗ് ആയിരിക്കുമല്ലോല്ലേ ബെറ്ററ് ഓക്കേ അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വിളി ഞങ്ങൾ വരാനാണ് ഉദ്ദേശിക്കുന്നത് ആ ഫ്രണ്ട്സിന്റെ കൂടൊരു ഫ്രണ്ട്സിന്റെ കൂടെ വരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ ഞാൻ വരുന്നതിൻ്റെ തലേന്ന് വിളിച്ചാൽ മതിയോ ഒരു രണ്ടു ദിവസം മുൻപ് വിളിച്ചാൽ മതിയോ ഞങ്ങളൊരു പത്തു പേരെ ഉള്ളൂ പത്ത് പേരാണ് അപ്പോൾ വന്ന് ഓക്കേ ഓക്കേ അപ്പം ഞാൻ രണ്ടു ദിവസം മുൻപ് വിളിക്കാം നിങ്ങളെ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ താങ്ക് യൂ